ഇന്ത്യയിലെ കാലാവസ്ഥ ഇന്ത്യയിലെ കാലാവസ്ഥ എന്നുപറഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലും പല രീതിയിലുള്ള കാലാവസ്ഥകളാണ് ഉള്ളത് അതിൽ കേരളം അതു നമ്മൾ താമസിക്കുന്ന കേ കേരളത്തിലാണ് കേരളത്തിൽ ജൂൺ മാസം തുടങ്ങി ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസം വരെ മഴ നല്ല രീതിയിൽ മഴ കിട്ടുന്ന സമയമാണ് ആ സമയങ്ങളിൽ മനുഷ്യർക്കുണ്ടാകുന്ന പകർച്ചവ്യാധികളും രോഗങ്ങളും ദുരിതങ്ങളും എല്ലാം വെള്ളപ്പൊക്ക ഭീഷണിയും മലയിടിച്ചിലും അങ്ങനെയുള്ള ചില ദുരന്തങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങളനുഭവിക്കാറുണ്ട് ഒത്തിരി കൃഷി നാശങ്ങൾ സംഭവിക്കാറുണ്ട് വീടുകൾക്ക് നാശങ്ങൾ സംഭവിക്കാറുണ്ട് കാറ്റും വന്നു മഴയുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ കേരളത്തിനെയാണ് കൂടുതൽ ബാധിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കും ചുഴലിക്കാറ്റുകൾ ക് പിന്നെ കേരളം എന്നു പറഞ്ഞാൽ മൂന്നു വശവും കടൽ ചുറ്റപ്പെട്ടു കിടക്കുന്നതു കൊണ്ട് പിന്നെ കടൽ തിരമാലകളടിച്ചു കയറി അങ്ങനെയുള്ള ദുരിതങ്ങളുണ്ട് ഞങ്ങളുടെ സംബന്ധിച്ച് എന്നു പറഞ്ഞാൽ കുട്ടനാട് ഏരിയയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ആ സ്ഥലങ്ങളില്ലെന്നു പറഞ്ഞാൽ ഈയൊരു സ ജൂലൈ ജൂൺ ചൊലങ്ങി സെപ്റ്റംബർ മാസം വരെയും ഏതു സമയത്തും വെള്ളം വന്ന് വീ വീടുകൾ നശിക്കുകയും ഞങ്ങൾക്ക് കൃഷി നാശങ്ങൾ സംഭവിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട് ഈ ഈ ഈ വർഷം ഒരു പ്രാവശ്യത്തെ വെള്ളം കഴിഞ്ഞു ഇനി അടുത്ത വെള്ളത്തിനു വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണെപ്പോഴും പിന്നെ കുട്ടനാട്ടുകാരനെന്നു പറഞ്ഞാൽ എപ്പോഴും കരുതി ഇരിക്കുന്ന ഒരു ജന വിഭാഗം വാ എങ്കിലും കൃഷിനാശം സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല പിന്നെ അതായത് ഒരു വെള്ളപ്പൊക്കം കാണുമ്പോഴെ ഇപ്പോൾ എല്ലാവരും ഒരുമാതിരി വീടൊക്കെ ഇച്ചിരി ഉയർത്തിപ്പൊക്കിക്കെട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും ഒത്തിരി ജനങ്ങൾ വെള്ളം കൊണ്ട് പിന്നെ ദുരിതമനുഭവിക്കുന്നൊത്തിരി പേരുണ്ട് ഗാസി ക്യാമ്പുകളും അങ്ങനെയുള്ള സ സ്കൂളുകളിലൊക്കെ മാറിത്താമസിക്കുന്നു പിന്നെ പൊക്കവുള്ള വീട്ടുകാർ അവരുടെ വീട്ടിൽ അയൽവക്കം കൂടി വന്ന് ഒത്തൊരുമയോടു ഒന്നിച്ചു പോകുന്നുണ്ട് പിന്നെ കൃഷിനാശം നെൽക്കൃഷിയാണ് കൂടുതലും കേരളത്തിൽ അതു കാലാവസ്ഥയെ ആശ്രയിച്ചു കൊണ്ട് നമ്മൾ പമ്പയാറിലെ വെള്ളം അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട് ഈ കാലാവസ്ഥ മോശമാകുമ്പോളാണ് നമുക്ക് കൃഷി നാശവും അമിത വെള്ളപ്പൊക്കം വന്നു കൃഷി നാശമൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ദുരിതത്തിൽ ആകുന്ന പിന്നെ ചെന്നൈയ്യിൽ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ മഴയില്ല മഴയില്ലെന്നും പറയാൻ പറ്റത്തില്ല രണ്ടുമൂന്നു വർഷ മു കു കുറച്ച് വർഷങ്ങളായിട്ടു അവിടെയും അത്യാവശ്യം മഴ കിട്ടുന്നുണ്ട് പക്ഷെ ഡ്രെയിനേജ് സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാരണം അവിടെ വെള്ളം പെട്ട പെട്ടെന്നൊരു ഭീകരാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് അതായതു നമ്മുടെ കസിൻ ഒക്കെ അവിടെ താമസിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ വീടുകളിൽ വെള്ളം കയറുകയും പെട്ടെന്ന് എങ്ങോട്ട് എന്തു ചെയ്യണമെന്നവർക്കറിയാൻ പറ്റത്തില്ല അതായത് കുറച്ചു കാലങ്ങളെയായുള്ള ഇങ്ങനെ മ് അമിതമായ മഴ ലഭിക്കാൻ തുടങ്ങിയിട്ട് അതുവരെ നല്ല ചൂട് സമയങ്ങളായിരിക്കും ബോംബെയിലുണ്ട് ബോംബെയിലാണെങ്കിലും അതിശക്തമായ മഴയെന്നു പറയുന്നതു വല്ലപ്പോഴും വർഷങ്ങൾ കൂടുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങനെ വരുന്നുണ്ട് അതും ഒരു ഭീകരത തന്നെയാണ് പിന്നെ ഇച്ചിരി വെള്ളം നമുക്ക് മറ്റു സംസ്ഥാനങ്ങൾ എന്നു പറഞ്ഞാൽ പിന്നെ ഡൽഹി ഉത്തർ പ്രദേശ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മഴക്ക് തീരെ കുറവാണ് നമ്മൾ അതേപ്പറ്റിയൊന്നും പിന്നെ ആന്ധ്രയിലാണ് ഭയങ്കര മഴയായിട്ടു നമുക്കറിയാവുന്നത് അല്ലാതെ നമ്മുടെ ഇവിടെത്തന്നെ കേരളത്തിൽ ന്നെ മൺസൂൺ കാലം വേനൽകാലമങ്ങനെ പല കാലഘട്ടങ്ങളായിട്ട് നമുക്ക് മഴ ലഭിക്കാറുണ്ട് തുലാ തുലാമഴ കിട്ടാറുണ്ട് പിന്നെ കന്നിമുണ്ടൻ എന്നു പറയുന്നു കന്നിമാസത്തിലെ മഴകൾ തുലാ മഴയെന്നു പറഞ്ഞാൽ ഇടിയോടുകൂടി തുലാമഴകൾ വരുന്നുണ്ട് അസമയത്തൊക്കെ അങ്ങനെ പല സൈസിലുള്ള പിന്നെ കാലാവസ്ഥകളാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിലും മഴയുണ്ട് മഴ വന്നുകഴിഞ്ഞാൽ അവർക്കും ദുരിതങ്ങളുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട് പിന്നെ ക മഴയുടെ അല്ല കാലാവസ്ഥയുടെ ഭീകരതകൾ ചൂട് വന്നാൽ ചൂട് തണുപ്പ് വന്നാൽ തണുപ്പ് അങ്ങനെയുള്ള കാലാവസ്ഥകളായിരിക്കും മറ്റുള്ള സ്ഥലങ്ങളിൽ